മാനസിക രോഗം എന്ന് വെച്ചാൽ മാനസികമായ ബുദ്ധിമുട്ട് നേരിടുന്ന ഓരോ രീതികളും അല്ലെങ്കിൽ അവസ്ഥകളൊക്കെയാണ് മാനസിക രോഗത്തിൽ പെടുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ വിഷാദം വിഷാദ രോഗം പിന്നേ ഹൈപ്പർ ടെൻഷൻ അങ്ങനൊക്കെ അതുപോലുള്ള കാര്യങ്ങളാണ് മാനസിക രോഗത്തിനു എക്സാമ്പിള് മാനസിക രോഗങ്ങൾ കൈകാര്യം ചെയ്യാൻ അത്ര കേന്ദ്രങ്ങളൊന്നും ഇല്ലെന്നാണ് എന്റൊരറിവില് അപ്പോൾ അതുണ്ടെങ്കിൽ നല്ലതായിരുന്നു അനങ്ങനെ ബുദ്ധിമുട്ട് ശാരീരികമായി മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഒരു തണലായിരിക്കും അങ്ങനൊരു കേന്ദ്രങ്ങളുണ്ടെങ്കി സമൂഹത്തില് അത് വളരെയാധികം ഉപയോഗപ്പെടും സമൂഹത്തിലൊരു വലിയൊരു കാര്യമായിട്ട് അങ്ങനെ ആദ്യം ആരും കണക്കാക്കാറില്ല ഈ മാനസിക ആരോഗ്യത്തിനെ കുറിച്ചൊന്നും സ്വന്തം കാര്യം നോക്കി നടക്കുന്നവരാണ് എല്ലാരും അതോണ്ടന്നെ മാനസികാരോഗ്യം അത്രെ കാര്യമാക്കുന്നില്ല സമൂഹത്തില്